ആ ഹലോ ആ ജോയിച്ചേട്ടാ എന്നാ ഉണ്ട് വിശേഷങ്ങൾ ആ കല്യാണ ഫങ്ക്ഷനൊക്കെ എങ്ങനെയുണ്ട് ആ മ്മ് മ്മ് അല്ല ആ അത് ഫുഡൊക്കെ എവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ അതിൻ്റെ ഫുഡൊക്കെ എവിടെനിന്നാണ് ഓർഡറെയ്തത്

ആ ഭക്ഷണം മ്മ് ആ സ്റ്റേജൊക്കെ നല്ലതായിരുന്നു നല്ല സ്റ്റേജുകള് ഏ ആ കല്യാണ ഫങ്ക്ഷൻ

ആ ആ പിന്നെ ഹാളൊക്കെ എല്ലാം റെഡിയായി അതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരെ ഏപ്പിച്ചിട്ടുണ്ടല്ലോ ഏ ആ അതെ നമ്മള് തന്നെ നടത്തുമ്പോള് ഭംഗിയായിട്ട് നടത്തണമല്ലോ അപ്പോള് സ്റ്റേജൊക്കെ എന്നു പറഞ്ഞുകഴിഞ്ഞാല് നല്ല ഉത്തരവാദിത്തം ഉള്ളവര് ഏറ്റാലല്ലേ അതു പറ്റുകയുള്ളു നമ്മളൊരു ഫങ്ക്ഷൻ നടത്തുകയല്ലേ അതും അല്ല അങ്ങനെയാണെങ്കിലും നമ്മുടെ ആരെയെങ്കിലും ഏപ്പിച്ചാല്പ്പോരാ നമ്മുടെ ഉത്തരവാദിത്ത മുള്ളവര് അതിന്റെ അകത്തുകൂടെ ഉണ്ടാവണം എപ്പോഴും നമ്മളാവക കാര്യങ്ങളൊക്കെ നോക്കണം ഏ അപ്പോള് ഇപ്പോള് പള്ളിയിലെ കാര്യങ്ങളും നമുക്കിപ്പോള് പള്ളിയില് ഉത്തരവാദിത്തപ്പെട്ടവര് പള്ളിയില് നില്ക്കുമ്പോള് ഫങ്ക്ഷൻ്റെ കാര്യങ്ങളിലേക്കു നമുക്കത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കില് ഉത്തരവാദിത്തമുള്ളവരെയാണു നമ്മളത് ഏല്പ്പിക്കേണ്ടത് നമുക്കെല്ലാ കാര്യങ്ങളും ഓടിനടന്നു ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏ ആ അപ്പോള് അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു കല്യാണത്തിനു മെയിനായിട്ട് അതില് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങള് വരുന്നത് എ ആ അപ്പോള് അതുകൊണ്ട് ആ ആ അതെ അതേ എല്ലാ ഫങ്ക്ഷനിലും ഓരോ കാര്യമുണ്ട് ഉത്തരവാദിത്തമുള്ള ആളെ ഏൽപ്പിക്കു എന്നുള്ള നമ്മള് പള്ളിയിലേക്കു ചെന്നാല് നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നിനും അനങ്ങാൻ പറ്റത്തില്ല നമ്മളിവിടെ നടക്കുന്ന പരിപാടി

മ്മ് മ്മ് ആ നമ്മുടെ ഗാനമേളയായിട്ട് എന്തെങ്കിലും വയ്ക്കുന്നുണ്ടോ ഹാളിനകത്ത് ഗാനമേളയായിട്ട് അങ്ങനെന്തെങ്കിലും പരിപാടി ചെറുതായിട്ട് ഒരു മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയില് ഒരെണ്ണം നല്ലതാണ് ഒരുപാടല്ല ഒരു ചെറിയ രീതിയില് ഒരു ഹാളിന് ഒരനക്കമുണ്ടാകുമല്ലോ ആ അത് നമുക്ക് ഇപ്പോള് എല്ലാം ഒരു ട്രെൻഡാണല്ലോ ആ ട്രെൻഡനുസരിച്ച്

മ്മ് ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് അതേ അതിപ്പോള് സാധാരണ കെട്ടുന്ന രീതിയിലാണല്ലോ അതെ അതെ അതെ ആ അപ്പോള് അതുകൊണ്ടാണു ഞാൻ ജോയിച്ചേട്ടനോടു ചോദിച്ചത് കാരണം എന്നാന്നു വച്ചുകഴിഞ്ഞാല് നമ്മളൊരു ഒരു പരിപാടി നമ്മള് ചെയ്തെ എന്നും സ്ഥിരം നടത്തുന്ന ആളല്ലാത്തതിൻ്റെ പേരില് നമ്മള് നടത്തുമ്പോള് ഏ അതു തന്നെയല്ല നാളെയാണെങ്കിലും എനിക്കൊരു പരിപാടി നടത്തുമ്പോള് ഇതൊക്കെ എവിടെയാണ് എവിടെയാണാ അറേഞ്ച്മെൻറ്റെയ്തത് എങ്ങനെയാണ് വിളിച്ചത് എന്നൊക്കെ എനിക്ക് ചോദിക്കാമല്ലോ ഏ അപ്പോള് അതനുസരിച്ച് നമുക്ക് കംപ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉവ്വ് ഉവ്വ് ഉവ്വ് വ്വ് വ്വ് വ്വ് ആ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ആ അതെ അതെ അതാണ് ആ അങ്ങനെ ആയി കാര്യം ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ചെറിയ രീതിയിലൊരു ഗാനമേളയൊക്കെ കുഴപ്പമില്ലെന്നേ ഒരു ചെറിയ രീതിയില് ഗാനമേള

ഉവ്വ് ഉവ്വ് അ

ആ ആ ആ അപ്പോള് നമ്മള്ക്കു നേരത്തേ തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മള്ക്കു ചെയ്യാം കേട്ടോ

ആ ആ എന്നാല്പ്പിന്നെ ജോയിച്ചേട്ടാ എന്നാല് ശരിയെന്നാല് വയ്ക്കട്ടെ ഇതിൻ്റെ കാര്യങ്ങള് ഏ